ഹലോ ആ ഹലോ ഇത് മൂന്നാറുള്ളൊരു റബ്ബർ ഫാക്ടറിയല്ലേ ആ ഞാനൊരു ആ പുറത്ത് ആഫ്രിക്കയിൽ നിന്ന് വരികയാണ് ആ എനിക്ക് റബ്ബറിനേപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ആ അതിൻ്റെ ഫാക്റ്ററിയും കാര്യങ്ങളുമൊക്കെ ഒന്നു കാണാനും ഒക്കെ ആയിട്ട് താങ്കളുടെ എനിക്കൊരു റിസർച്ചുണ്ടായിരുന്നപ്പം അതിന് ഇതിലേപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യമിതൊന്നും കാണുകയൊക്കെ ചെയ്യണമായിരുന്നു ഓ അതേ അതെ ഓ അതെ അതെ

അതേയല്ലേ ആ എനിക്കെന്തായാലും ഫാക്റ്ററിയൊന്ന് കാണണമായിരുന്നപ്പം അതിനുള്ള ഒരു അതല്ലേ ഒരു ദിവസം നമുക്ക് എത്രത്തോളം ഈൽഡ് പ്രതീക്ഷിക്കാം ഇതിനകത്തു നിന്ന് ആണല്ലേ അത് ഓ ഓക്കേ ആ അപ്പം കട്ടിങ്ങൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യാറ് ആണല്ലേ മാൻ പവർ യൂസ് ചെയ്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആ ആണല്ലേ പിന്നേ ആ അപ്പം ഇത് നമുക്ക് എത്ര സമയം കൊണ്ടാണ് ഒരു റബ്ബർ മെച്വറായിട്ട് പൂർണ്ണമായിട്ടതിൻ്റെ വളർച്ചയെത്തി അതിൻ്റെ പാൽ കിട്ടുന്നത് ഉണ്ടല്ലേ മ് മ് അതെയല്ലേ കുരുമുളകിൻറ്റെയൊക്കെ കൃഷി ഉണ്ടോ ചെയ്യാറുണ്ടോ ഇടവേളയിൽ ചെയ്യാറുണ്ട് അതെ അതേയല്ലേ ഏകദേശം എത്ര ഏക്കറിലാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഫാമൊക്കെ ഇരിക്കുന്നത്

ഓക്കേ ഓക്കെ ഓ ശരി താങ്ക് യൂ